യൂട്യൂബിലായാലും ടി വിലായാലും എല്ലാ പാചകവും ഒട്ടുമിക്ക പാചക വീഡിയോകളും കാണുന്ന ഒരാളാണ് ഞാന് ടി വിലാണെങ്കില് ആദ്യം ഒരു ഏഷ്യാനെറ്റിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടു മണി ആണോ പന്ത്രണ്ടരക്ക് ആണൊരു കുക്കറി ഷോ ഉണ്ടായിരുന്നു അത് എല്ലാ ദിവസവും കാണുമായിരുന്നു വീട്ടിലിരിക്കുന്ന ദിവസമെല്ലാം പിന്നെ കാണുന്നത് യുട്യൂബിലെ ഒട്ടുമിക്ക എല്ലാം കാണാറുണ്ട് ഇപ്പോൾ പേര് ചോദിച്ചാൽ പേര് അങ്ങെനെ ഓര്മ്മയില്ല എല്ലാ ആണുങ്ങൾ വയ്ക്കുന്നതിലും പെണ്ണുങ്ങൾ വയ്ക്കുന്നയിലും എല്ലാം ഞാന് കാണാറുണ്ട് അമ്മച്ചിമ്മാർ ഉണ്ടാക്കുന്ന വിഭവങ്ങളും എല്ലാം കാണാറുണ്ട് വളരെ ഇഷ്ടമാണ് അതൊക്കെ കാണുകയും അതെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയും എല്ലാം ഞാന് ഓരോ സ്നാക്ക്സ് ആയാലും കറികള് ആയാലും ബിരിയാണി ഐറ്റംസ് എല്ലാം ഞാന് കാണാറുണ്ട് പക്ഷെ ഇതുവരെ ബിരിയാണി ഒന്നും വച്ചിട്ടില്ല എല്ലാം കാണാറുണ്ട് ഒരു കുക്കർ ബിരിയാണി വയ്ക്കണം എന്ന് വലിയ ഒരു ആഗ്രഹമാണ് അതുപോലെതന്നെ ഞാന് വയ്ക്കും പിന്നെ സ്നാക്ക്സുകൾ എല്ലാം കുറെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേക്ക് ഞാന് ഇണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു കുക്കര് കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കിയത് കുഴപ്പമില്ലാതെയായി ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനല് എന്നു പറഞ്ഞാൽ ഒരു ഒരു ഒരു ഇക്ക വയ്ക്കുന്ന ഒരു ഇതുണ്ട് അതെനിക്ക് പേരോര്മ്മയില്ല അദ്ദേഹം വയ്ക്കുന്നത് കുക്കറി ഷോ വളരെ ഇഷ്ടമാണ്